എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പാട്ട് പാടുക അല്ലെ ഒരു പാട്ടുകാരി ആകുക എന്നുള്ള ലക്ഷ്യം വലുതായിട്ടില്ല എന്നാൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് നല്ല രീതിയിൽ പട ആൾക്കാരുടെ മനസ്സിൽ കുളിർമ കോരുന്നത് പോലെയുള്ള പാട്ടുകൾ പാടുക എന്ന് കൂടുതലും മലയാളം പാട്ട് പാടാനാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ആഗ്രഹത്തിൽ നമ്മുടെ നാടൻ പാട്ടുകൾ ഉണ്ട് ക്രിസ്ത്യൻ പാട്ടുകളുണ്ട് തനിമ നാടൻ രീതിയിലുള്ള പാട്ടുകൾ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാട്ടുകാരി ആകുക എന്നുള്ളതല്ല എന്നാലും പാട്ട് പാടാൻ ഒരു അവസരം കിട്ടിയാൽ അത് പേടി കൂടാതെ പാടാൻ പറ്റുക എന്നുള്ളതാണ് എൻറെ ഒരു ആഗ്രഹം അതിൽ ഇപ്പം എന്താണ് മുതിർന്ന പാട്ടുകാരുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടിയും ദൈവത്തിൻ്റെ സഹായത്തോടുകൂടിയും ദൈവത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടിയൊക്കെ എനിക്ക് പാട്ട് പാടാൻ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ പഴ ഒരു ലക്ഷ്യം പാട്ടിൻ്റെ ലക്ഷ്യവും എൻ്റെ പാട്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ പ്രത്യേക ലക്ഷ്യം ഒന്നുമില്ല പാട്ട് പാടാൻ ഒരു അവസരം കിട്ടിയാൽ ആരെയും പേടിക്കാതെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക അതിൽ പാടുക അതിൽ പങ്ക് ചേർന്ന് നല്ല റിസൾട്ട് വാങ്ങുക എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയേ ഉള്ളൂ